ലോക്ക്ഡൗൺന്റെ സമയത്താണ് ഏറ്റവും കൂടുതല് പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഇ ഇഷ്ടം മാതിരി വിഭവങ്ങള് കുക്ക് ചെയ്യ്തിട്ടുണ്ടായിരുന്നു ലെഡ്ഡു ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗുലാബ് ജാമുൻ പിന്നേ ബിരിയാണി ആദ്യമായിട്ട് ബിരിയാണി വെയ്ക്കുന്നത് ആ സമയത്താണ് ബിരിയാണി വെ വീട്ടില് ഉണ്ട ഉണ്ടാക്കുന്നത് ആ സമയത്ത അത് വളരെ വിജയകരമായിരുന്നു നല്ല ടെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ തന്നെ പര പല വിഭവങ്ങള് ചിക്കന്റെ പലത വെറൈറ്റി വിഭവങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റ് ഹല്വ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിലേറ്റവും എനിക്ക് ഇഷ്ടം പെട്ടത് ഞാൻ എനിക്കേറ്റവും സ്വീറ്റ്സ്സ് ഐറ്റംസ് ഉണ്ടാക്കാനായിരുന്നു ഏറ്റവും കൂട്തല് ഇഷ്ടം അത് അതുകൊണ്ട് ഇ ലെഡ്ഡു ലെഡ്ഡു തന്നെ റവ ലെഡ്ഡു പിന്നെ കടലമാവ് വെച്ച് വെച്ചുള്ള ലെഡ്ഡു അങ്ങനെ കുറെ വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മിക്ക ചിലതൊക്കെ നല്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ചില സമയത്ത് അതൊക്കെ ഫ്ലോപ്പായിട്ട് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പം എന്തേലും നമ്മൾ ഇടുന്നത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമ്പം അതില് ടേയ്സ്റ്റ് വ്യത്യാസം വരുമായിരുന്നു മിക്ക ഏറ്റവും കൂടുതല് ഞാന് ഉണ്ടാക്കിയിട്ടുള്ളത് ലെഡ്ഡുവായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവം അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ചിക്കന് വെച്ചിട്ട് ചിക്കന് കൊണ്ടാട്ടം എന്ന് പറഞ്ഞ് യൂ അത് യൂറ്റൂബിൽ കണ്ടിട്ട് അങ്ങനെ ഒരു വിഭവമുണ്ടാക്കി അത് അടിപൊളിയായിരുന്നു പിന്നെ പപ്പായ കൊണ്ട് പായസം ഉണ്ടാക്കിയായിരുന്നു പപ്പായ വെച്ചിട്ട് അത് കുറച്ച് മധുരം കൂടിപ്പോയിരുന്നു ആ സമയത്ത് പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വേറെ പയറ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കടലപ്പരിപ്പിന്റെ അതേപോലെ കുറച്ച് കുറെ അധികം സ്വീറ്റ്സ് ഐറ്റംസ് കൂട്തലായിട്ടും പരീക്ഷിച്ചിട്ടുള്ളത് എനിക്ക് ഇഷ്ടം സ്വീറ്റ്സ് ഐറ്റംസ് ആയിരുന്നു